ഹലോ ഇത് ടിക്കറ്റ് പീഡ് ട്രാവൽ ഏജൻസി അല്ലേ അതെ ഞാനൊരു മലപ്പുറത്തൊരു ഹെരിറ്റേജ് പ്ലേസുകള് ഹെറിറ്റേജ് ഹിസ്റ്റോറിക്കൽ പ്ലേസുകള് കാണാനും വേണ്ടി അതിൻ്റെയൊരു ടൂര് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോള് അതിനെക്കുറിച്ച് നിങ്ങളുടെ പാക്കേജിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഓക്കെ അപ്പോള് അതിന്റെ അല്ല നമുക്ക് മാക്സിമം സ്ഥലങ്ങള് നമുക്ക് കവർ ചെയ്യണം ഹെറിറ്റേജ് അതേപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മാക്സിമം സ്ഥലങ്ങള് നമുക്ക് കവർ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോള് അതിൻ്റെ ഫുഡും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യില്ലെ നമുക്ക് ഒക്കെക്കൂടി അവസാനം പേ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാകുമോ ആ ഓക്കെ അപ്പോള് മാക്സിമം എത്ര ദിവസം വേണ്ടി വരും നമുക്ക് മലപ്പുറത്തെ ഏകദേശം ഹെരിറ്റേജ് പ്ലേസുകളൊക്കെയൊന്ന് കവര് ചെയ്യാന് ഓക്കെ നമ്മള് ഇപ്പോള് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങള് ഏതായിരിക്കും നമുക്ക് കൂടുതൽ കംഫേർട്ടായിട്ടുള്ള വാഹനങ്ങള് കിട്ടുകയാണെന്നുണ്ടെങ്കില് കൂടുതൽ ഉപകാരമായിരുന്നു നമ്മള് നാല് പേരുണ്ടാകും ഒരു ഡ്രൈവറായിട്ട് വരിക ആ ഓക്കെ അതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് കാര്യങ്ങള് അറിയുന്ന ഡ്രൈവർ തന്നെയായിരിക്കില്ലേ ആ ഓക്കെ ആ ഓക്കെ അപ്പം നമ്മള് ഇതിന് ഡ്രസ്സ് കാര്യങ്ങളിപ്പോള് കൂടെ ഒരു വിദേശിയുണ്ട് അപ്പോള് നമ്മള് ഷോട്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനത്തെ പ്ലേസുകളാണോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മള് എങ്ങനെയൊക്കെ കരുതണം ആ ഓക്കെ ഇതില് സ്പെഷ്യലായിട്ട് വരുന്നത് പ്രത്യേക സ്ഥലങ്ങളില് കയറുമ്പോഴുള്ള ടിക്കറ്റ് നമ്മുടെ ഈയൊരു പാക്കേജില് ഇൻക്ലൂഡഡായിരിക്കില്ലെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഇതിലിപ്പോള് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് മലപ്പുറത്ത് വരുന്ന ഹെറിറ്റേജ് പ്ലേസുകള് നമ്മുടെ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം അതുപോലെ താനൂര് കോട്ടക്കുന്ന് ഭാഗങ്ങളൊക്കെ എന്തായാലും ഉൾപ്പെടില്ലേ ആ ഓക്കെ എന്നാല് ശരി ഞാന് നിങ്ങളെ വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക് യൂ